ഇതാരാണ് വിളിക്കുന്നത് ആ എന്തായിരുന്നു

ഇല്ല ഏത് ഡോക്ടറെയാണ് കാണിച്ചത്

എത്ര ദിവസമായി മരുന്ന് മേടിച്ചിട്ട് ആ

പനി മാത്രമേ ഉള്ളോ ആഹാ അവിടെനിന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ എന്താണ് ശരിക്കനും പറഞ്ഞത് ഈ മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ വരാനെന്തെങ്കിലും പറഞ്ഞിരുന്നോ ആഹാ ആണോ ഞാൻ ഈ തൃശ്ശൂരാണ് ആ ഉണ്ടായിരുന്നു ഞാൻ ഓരോ തിങ്കളാഴ്ച ദിവസവും വരുന്നുണ്ട്

ആ വരാമല്ലോ ബുക്ക് ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ ബുക്ക് ചെയ്യണം ഈ നമ്പറിൽ അല്ല വേറെ നമ്പർ ഉണ്ട് അതിലേക്ക് ബുക്ക് ചെയ്താൽ മതി ആവി വലിച്ചോ നല്ലവണ്ണം ആവി വലിക്ക് മൂന്നു നേരം ആവി വലിക്ക് ചൂടുവെള്ളത്തിൽ തുളസി ഇലയും പനികൂർക്കയുടെ ഇലയുമിട്ടിട്ട് ആവി പിടിച്ചാൽ മതി

ആഹാ

എന്തായാലും മൂന്നു നേരം അതൊന്ന് വലിച്ചു നോക്ക് മ് ആ തിങ്കളാഴ്ച രാവിലെ തന്നെ വിളിച്ചു ബുക്ക് ചെയ്യണേ മ് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത് ആ ആ ഓക്കെ